നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തല്ല ഇന്ന് നിലവിൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് പോപ്പുലേഷൻ മാത്രമല്ല അത്യാവശ്യം ഭൂ വിസ്തൃതിയും കൂടി ഉള്ളൊരു രാജ്യമാണ് ആ പോപ്പുലേഷൻ ഉൾക്കൊള്ളാനുള്ള ഭൂവിസ്തൃതി ഉൾ ഇല്ലെങ്കിലും ചെറിയ രാജ്യമല്ല അപ്പോൾ നമ്മുടെ ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പിന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള തൊഴിലവസരങ്ങളും തൊഴിൽ വിപണികളും വേണം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത്രയും ഇല്ല നമ്മുടെ ഈ വാക്കുകൾ പലരും നമുക്കറിയാം തൊഴിൽ രഹിതരാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള പ്രൊജക്റ്റും അതിന് വേണ്ടി അത് മുന്നോട്ട് കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗവൺമെൻ്റ് ഇവിടെ ഇല്ലാത്തതാണ് എനിക്ക് പലപ്പോഴും ആ ഒരു നമ്മുടെ ഈ ഒരു വെല്ലുവിളിക്ക് പരിഹാരമാകാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഗവൺമെൻ്റ് മോഡി ഗവൺമെൻ്റ് പിന്നെയും കുഴപ്പം ഇല്ലാണ്ട് അത്യാവശ്യം പ്രൈവറ്റ് സെക്ടേഴ്സൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജോലി അവസരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നുണ്ട്